ഞാൻ കുളത്തൂർ ഗ്രന്ഥശാല ലൈബ്രറിയിൽ അംഗമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെ വായനക്ക് ഇ ഈ അടുത്ത കാലത്ത് ആൾക്കാർക്ക് പൊതുവെ ഒരു താത്പര്യ കുറവുണ്ട് പലപ്പോഴും രാഷ്ട്രീയ സംഭാഷണങ്ങളും മറ്റുമാണ് അവിടെ കടന്നുവരുന്നത് അതേസമയം ധാരാളം പുസ്തകങ്ങൾ ഉള്ള ഈ ഒരു ഗ്രന്ഥശാലയിൽ താത്പര്യം കൂടുതൽ ജനിപ്പിച്ചു കൊണ്ട് കുട്ടികളായാലും മുതിർന്നവരായാലും മുതിർന്ന പ്രായം ചെന്നവരായാലും എല്ലാവർക്കും അവിടെ വന്നു വായിക്കാനും അതിനുവേണ്ട സംവിധാനങ്ങളുണ്ട് പക്ഷെ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരാശങ്ക പലർക്കും അവിടെ കടന്നു വരാനായിട്ട് സാധിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് അപ്പം എൻ്റെ ഒരാശയം ഇത് പ്രമോട്ട് ചെയ്യുന്നതിനു വേണ്ടിയിട്ട് ഈ കൂടുതൽ എ എന്തെങ്കിലും വിഷയം കോളേജ് ലെവലെന്തെങ്കിലും മറ്റും പഠിക്കുന്ന കുട്ടികളെ ഇതിലേക്ക് കൂടുതൽ കൊണ്ടു വരികയും അവരിലൂടെ അവരുടെ സമപ്രായക്കാരെ കൊണ്ടു വന്നു വായിപ്പിക്കുന്നതിനുള്ളൊരു സാഹചര്യം ജനിപ്പിക്കുകയും ചെയ്തു കൊണ്ട് മൊബൈലേക്കും മറ്റ് എൻറ്റർറ്റൈൻമെൻറ്റിലൊക്കെ പോകുന്നവർ ഈ വായനാശീലം വളർത്തുന്നതിനു കൊണ്ടുവരുന്നതിനു കൊണ്ടുവന്നാൽ നമുക്ക് കുറച്ചു കൂടി മെച്ചപ്പെട്ട ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാനായിട്ടു സാധിക്കും ചില ലൈബ്രറികളിൽ വിദേശത്ത് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് അവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് നിശ്ചിത സമയം ഈ ലൈബ്രറികളിൽ അതായത് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പ്രദേശത്തെ ലൈബ്രറികളിൽ പോയി എക്സ്പീരിയൻസെടുക്കണം അങ്ങനെ എക്സ്പീരിയൻസ് എടുക്കുമ്പം അവർ പല ക്യാറ്റഗറിയിലുള്ള ഒരു ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസു വരെ അങ്ങനെ പല ക്യാറ്റഗറിയിലുള്ള കുട്ടികൾക്കു പല തരത്തിലുള്ള ഗെയിമുകൾ കൊടുക്കുന്നു പല തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കാനായിട്ടു കൊടുത്ത് ആ പുസ്തകം വായിച്ചതിനു ശേഷം അവർക്ക് എക്സർസൈസ് കൊടുക്കുന്നു